ഹലോ

മ്മ് പഴവർഗ്ഗങ്ങൾ ഏത്തപ്പഴം ഉണ്ട് രസകദളിയുണ്ട് പാളയംതോടനുണ്ട് പിന്നെ പൂവൻപഴം ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരിയുണ്ട് ഫ്രൂട്ട് പിന്നെ പേരക്കയുണ്ട് പൈനാപ്പിളുണ്ട് എല്ലാ ഐറ്റംസ് പഴവർഗ്ഗങ്ങളും ഇവിടെ കിട്ടും ആ ആ ചക്കപ്പഴം വരിക്കച്ചക്ക നല്ല പുതിയ ഇനം ചക്കപ്പഴം ഉണ്ട്

നെല്ലിക്കയുണ്ട് എല്ലാ തരം നെല്ലിക്കകളും ഉണ്ട് ആ ആ വലിയ നെല്ലിക്കയുണ്ട് നാടൻ നാടൻ നെല്ലിക്കയുണ്ട് അല്ലാതെ ഉള്ള നെല്ലിക്കകളുണ്ട് നെല്ലിക്ക മൂന്ന് നാല് സൈസിലുള്ള നെല്ലിക്കകളുണ്ട്

ആ ആ ആ ആ അത് ആ ഫ്രഷ് തന്നെ

അത് എങ്ങനെ വേണമെങ്കിലും കിട്ടും പീസ് പീസ് ആക്കിയിട്ട് എടുക്കണമെങ്കിലും കിട്ടും ഒന്നുകൂടെ മുഴുവനായിട്ട് ഉള്ളത് വേണമെങ്കിലും കിട്ടും

ആ ആണോ ആ

ആ ആ ആ ആ ഇത്ര വില മ്മ് മ്മ് മ്മ് ആ പൈനാപ്പിള് നല്ല നല്ല നിലവാരം ഉള്ളതുണ്ട് ആ ആ നാടനാണ് നാടനാണ് മ്മ്

ആ ആ സ്ഥലം പറഞ്ഞാൽ മതി കൃത്യമായിട്ട് എത്തിക്കാം ആ ആ ആ ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് നെല്ലിക്ക

ആ ആ ആ മെഡിക്കൽ കോളേജ് എവിടെയാണ് മെഡിക്കൽ കോളേജ് എവിടെയായിട്ട് വരും ആ ആ ആ അവിടെ വല്ല അവിടെ വന്ന് വിളിച്ചാൽ ആ ആ ആ ആ ആ ശരി എന്നാൽ ആ ശരി ശരി ഓക്കെ ശരി ശരി ശരി